ഹലോ ഹലോ സാർ ഹലോ ഹലോ പ്രിൻസിപ്പൽ സാറല്ലേ ഹലോ സാർ ഞാൻ ജോണിൻ്റെ ഫാദർ ആയിരുന്നു ആ ആ സാറേ സാറെ ഞാൻ വിളിച്ചത് സാർ അവൻ വീട്ടിൽ വന്നാലും ഇപ്പം പഠിക്കുന്നില്ല സാറ് പിന്നെ വേറെ ഒരു കാര്യങ്ങളിൽ അവൻ അങ്ങനെ ഇൻട്രസ്റ്റായിട്ടൊന്നും അത് ചെയ്യുന്നില്ല പഠനത്തിലും ഇല്ല പിന്നെ മൊത്തത്തിൽ ഒരു ഒരു സൈലൻ്റ് ആയിട്ടിരിക്കും സാറെ അപ്പം അത്

ആ സാർ അത് ചിലപ്പം വീട്ടിൽ അവൻ വീട്ടിൽ പണ്ടത്തെ പോലെ അല്ല സാർ ഇപ്പം വീട്ടിൽ വന്നാലും അങ്ങനെ ഇതൊന്നുമില്ല വരുന്നു എവിടെയെങ്കിലുമിരിക്കുന്നു ഫോണിലൊക്ക നോക്കി ഇരിക്കും സാർ ആ പണ്ടത്തെ അത്ര വർത്തമാനം പറയുകയോ വീട്ടിലേക്ക് ആര് അതായത് അവിടത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല സാറെ ആ അത് സാർ ഇപ്പം ഇപ്പം അവിടുത്തെ അതായത് സ്കൂളിൽ നിന്ന് വല്ലതും സ്കൂളിൽ ഇങ്ങനെ തന്നെ ആണോ എന്നറിയാനല്ലേ സാറിനെ വിളിച്ചത് സ്കൂൾ അപ്പം ഇറങ്ങി സാർ അപ്പം അത് സാർ അപ്പം എന്താണ് ആ സാർ ഇപ്പം സ്പോട്സിലൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് സാർ അത് സ്പോർട്സ് ഇപ്പം ആ സാർ ലിസ്റ്റ് ആ

ആ അതെ സാർ ആ സാർ ആ ഇപ്പം ആ സാർ ഇപ്പം ആ

ഓ ഓക്കെ സാർ അങ്ങനെ അല്ലേ ആ ഞാൻ സാറ് ആ ഇപ്പം വീട്ടിൽ വന്നാൽ അവനങ്ങനെ തന്നെയാണ് സാർ അപ്പം ഞങ്ങൾ ഓർത്തു പിന്നെ സ്കൂളിൽ ചെന്ന് എന്തേലും ചേഞ്ചസ് ഉണ്ടാവും ഫ്രണ്ട്സിനെ കാണുമ്പോഴൊക്കെ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു സ്സ്കൂളിൽ അങ്ങനെ തന്നെ സാർ സാർ പണ്ടത്തെ അല്ലെ സാർ ഇത് വീട്ടിൽ നിന്ന് വീട്ടിൽ വരും അത്യാവശ്യത്തിന് മിണ്ടിയാൽ തന്നെ ഉള്ളൂ സാർ പണ്ടത്തെ പോലെ അത്ര പണ്ടെല്ലാം വരുമ്പോഴേ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ എന്തിനാണ് അറിയത്തില്ല സർ

ആ അത് ആ അതെ സാർ എനിക്ക് ഇപ്പം പിന്നെ ബിസിനസിൻ്റെ ഇതായതുകൊണ്ട് സാർ അപ്പം ജോലി കഴിഞ്ഞു ഞാൻ വരുമ്പോഴത്തേക്ക് വൈഫും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സാർ അപ്പം അങ്ങനെ നമ്മൾക്ക് അവനുമായിട്ട് ടൈമ് സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ കിട്ടുന്നില്ല അതാണ് ഇഷ്യൂ അത് അത് അതിൻ്റെ ഒരു മ് മ് ആ ഓക്കെ സാർ താങ്ക് യു ഓക്കെ